ബേസിക്കലി ഞാൻ ഒരു സ്പോർട്സ് മേനാണ് അപ്പോൾ ജോലിക്ക് പുറമെ എന്ന് പറയാൻ എൻ്റെ മെയിൻ എന്റർടൈൻമെന്റ് ഈ സ്പോർട്സ് ആക്ടിവിറ്റീസാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് ആക്ടിവിറ്റീസിലാണ് ഞാൻ അധിക നേരവും സമയം ചിലവഴിക്കാറ് ഇപ്പോൾ മോർണിംഗ് ഇടയിൽ മോർണിംഗ് റണ്ണിങ് ഉള്ളതാണ് രാവിലെ ഒരു ഫൗർ ഫോർട്ടി ഫൈവ് ആകുമ്പോൾ അലാറം വെച്ച് ഞാൻ എണീക്കും ഒന്ന് വാം അപ്പ് ചെയ്യും റണ്ണിങ് ചെയ്യും എറൗണ്ട് ത്രീ കിലോ മീറ്റെർസ് ഡെയിലി റൺ ചെയ്യും റണ്ണിങ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കുറച്ച് ദിവസം കുറച്ച് നേരം എക്സസൈസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കൊറേ ടൈം പോകും പിന്നെ വരുന്നത് ഈവെനിങ്ങാണ് ഈവനിംഗ് നമ്മൾ ഫുട് ബോൾ ഫുട് ബോളാണ് മെയിനായിട്ട് എൻറ്റർടൈൻമെന്റ്റ് ഈവനിംഗ് നമ്മൾ ഇവിടെ അടുത്ത് സ്കൂളുണ്ട് സ്കൂൾ ഗ്രൗണ്ട് പോയിട്ട് ഫുട് ബോൾ കളിക്കും അതും ഒരുപാട് ഒരുപാട് നേരം കളിക്കും നമ്മൾ നാലുമണി അഞ്ച് മണിയാകുമ്പോൾ അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങും അവിടെ ഒരു അഞ്ചര അഞ്ചേ മുക്കാലാകുമ്പോൾ കളി തുടങ്ങും അങ്ങനെ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി തീർന്നിട്ട് ഒരു നമുക്ക് അങ്ങനെ സ്പെഷ്യൽ ടൈം ഒന്നുമില്ല ഇരുട്ടായാലും നമ്മൾ കളി കൺണ്ടിന്യു ചെയ്തു കൊണ്ടേയിരിക്കും ബികോസ് ദാറ്റ് മച്ച് എൻറ്റർടൈൻമെന്റ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ട്രിപ്പ് പോകും ട്രിപ്പ് പോകും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ട്രാവെല്ലിങ് ഇഷ്ടമാണ് വിത്ത് ഫ്രണ്ട്സ് എലോൺ അല്ല വിത്ത് ഫ്രണ്ട്സ് സൊ എല്ലാവരും ഒരു ട്രിപ്പ് പോകുമ്പോൾ തന്നെ നമ്മളുടെ ഒരു ദിവസം കമ്പ്ലീറ്റ് എൻജോയ് ചെയ്യാൻ അത് മതി പാട്ടും വെച്ചിട്ട് നമ്മൾ കുറച്ച് പേർ ആരാ ഫ്രണ്ട്സ് നാട്ടിലുള്ള ഫ്രണ്ട്സിനെ എല്ലാവരെയും പിടിച്ച് നിർത്തിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ട്രിപ്പ് പോകും അതുപോലെ തന്നെയാണ് സ്പോർട്സ് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ നമ്മൾ ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മീറ്റും സ്പോർട്സ് മീറ്റായാലും നോർമൽ മീറ്റായാലും എല്ലാം വെച്ചാലും അത് വെക്കുമ്പോൾ ഒക്കെ പോയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും സോ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ എൻ്റർടൈൻമെൻ്റ് കൊണ്ട് നമ്മൾ ഈ സ്പോർട്സും ഗെയിംസും ആണ് ബികോസ് ഞാൻ ഫിറ്റ്നസിൻ്റെ കൂടി ഇത്രയും മെയിൻടൈൻ ചെയ്ത പോകുന്ന ഒരാളാണ്